ഇപ്പം നമ്മുടെ കേരളത്തിൻ്റെ കലാരൂപമായ തെയ്യമൊക്കെയാണ് ഇപ്പം ഇവിടുത്തെ നമ്മുടെ ഫാഷൻ ആയിട്ട് മാറിക്കൊണ്ടിരിക്കുന്നത് ഇപ്പം നമ്മള നാട്ടിലാണെങ്കിൽ തന്നെ തെയ്യം പടയണി ഇങ്ങനത്തെയൊക്കെ കാണണമെങ്കിൽ തന്നെ വളരെ ബുദ്ധിമുട്ടാണ് കാരണം ആരും ഇപ്പം അങ്ങനെ അനുകരിക്കുന്നില്ല അതാണ് നമ്മുടെ ഇവിടുത്തെ ഇപ്പം കാണപ്പെട്ടു വരുന്നത് കാരണം ഇപ്പം അങ്ങനത്തെ ഇതൊക്കെ കാണണമെങ്കിൽ അത് സ്റ്റേജുകളിൽ നമ്മൾ പൈസ കൊടുത്ത് പോകേണ്ട അവസ്ഥയാണ് അല്ലെങ്കിൽ ഇതുപോലെ ഗാനമേള അങ്ങനെയൊക്കെ വരുമ്പോൾ അവർ നടത്തുന്നു അങ്ങനെയൊക്കെ പോയിട്ടേ നമുക്ക് കാണാൻ പറ്റത്തുള്ളൂ അല്ലാതെ നമുക്ക് കാണാൻ യാതൊരു ഇതുമില്ല കാരണം അതിനനുസരിച്ച് ആൾക്കാർ കുറഞ്ഞ് കുറഞ്ഞ് വരുക കാരണം അവരെ കിട്ടാനില്ല കാരണം അത് പഠിച്ചവരും വളരെ കുറവാണ് ഇപ്പം പണ്ടു കാലത്ത് അവരെയൊക്കെ തപ്പി കൊണ്ടിരിക്കുന്നു ആൾക്കാരെ അപ്പം അവരങ്ങനെയൊക്കെയാണ് ഇപ്പോഴത്തെ ഓരോ കലകൾ നമ്മൾ സൂചിപ്പിക്കുന്നത് ഇപ്പോൾ പണ്ടുകാലത്തെ കാലത്ത് നമ്മൾ ഇപ്പോഴത്തെ എന്തോ വളരെ കുറഞ്ഞ ആൾക്കാരും കുറയുന്നു നമ്മുടെ കല രൂപങ്ങൾ കുറയുന്നു ഇപ്പം എല്ലാവരും ഇവിടം വിട്ട് വേറെ വേറെ രാജ്യങ്ങളിലേക്ക് പോകുന്നത് കൊണ്ട് നമുക്ക് കലാരൂപങ്ങൾ അവരെ കലാകാരന്മാരെയും കലാകാരികളെയും എല്ലാവരെയും നഷ്ടപ്പെട്ടു മാറിക്കൊണ്ടിരിക്കുകയാണ് അതാണ് നമ്മുടെ കേരളത്തിൽ നമുക്കിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ അതായത് പെയിൻറ്റിങ് ശിൽപം അങ്ങനെ എല്ലാം നമ്മുടെ ഇവിടെ കാണപ്പെടുന്ന മറ്റൊരു തരങ്ങളിലാണ് നമ്മൾ കാണുന്നത് മൺപാത്രങ്ങൾ ഉണ്ടാക്കുന്ന പല കലാകാരന്മാരും നമ്മുടെ നാട്ടുകളിലുണ്ട് പക്ഷേ അതൊന്നും നമ്മളിപ്പോൾ അങ്ങനെ കാണപ്പെടുന്നില്ല ഇപ്പോൾ നമ്മൾ ഓരോന്ന് ഉണ്ടാക്കുന്നതായിട്ടിപ്പോൾ ഇങ്ങനെ ചെറിയ കടകളും മാത്രമാണ് നമുക്കിതൊക്കെ കാണപ്പെടുന്നത് നമുക്ക് അവരുടെ കടകളിൽ ചെയ്യുമ്പോൾ തന്നെ അവരുണ്ടാക്കി വെച്ചേക്കുന്ന സാധനങ്ങൾ കാണുമ്പോൾ അവർക്കിത്ര കഴിവുണ്ടെന്ന് തന്നെ നമുക്ക് കണ്ടപ്പോൾ പിന്നെ പെയിൻ്റിങ് ആണേൽ തന്നെ തന്നെയാണേൽ നമുക്ക് അറിയാം ഇപ്പോൾ പൈസ കൊടുത്തു വേണം ചെയ്യിപ്പിക്കാൻ പെയിൻറിംഗ് അല്ലാതെ നമുക്ക് യാതൊരു വഴിയില്ല പെയിൻറിംഗ് നമുക്ക് അടി ഇപ്പോൾ നമുക്ക് വരയ്ക്കാൻ അറിഞ്ഞാൽ പോലും ഇപ്പോൾ വീട്ടിലാണേലും വെളിയിലെവിടേലും പെയിൻറ്റിങ് ഭിത്തി പെയിൻ്റ് അടിക്കണേൽ പോലും നമുക്ക് പൈസ കൊടുത്തു ചെയ്യിപ്പിക്കേണ്ട അവസ്ഥയാണിപ്പോൾ നമുക്കാർക്കും അതിനുള്ള ഇത് ഇൻ്ററസ്റ്റ് ഇല്ല പിന്നെ എല്ലാത്തിനോടും ആർക്കും ഒരു ഇതില്ലാതെയാണ് നമ്മുടെ കലാരൂപങ്ങളിപ്പം മാറിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ തുണിത്തരത്തിലാണെങ്കിലും ആർട്ട് വർക്ക് ചെയ്യുന്ന കുറേ പേരുണ്ട് കാരണം അതിനൊന്നും ഇപ്പോൾ ആർക്കും ഒരു ഇൻ്ററസ്റ്റ് ഇല്ല ഇപ്പം എല്ലാം തയ്യിൽ മിഷിൻ ഉണ്ട് എല്ലാവരും അങ്ങനെയാണ് ചെയ്യുന്നത് ഇപ്പം മാറ്റങ്ങൾക്ക് ശേഷം കൈ തയ്യൽ പണ്ട് കയ്യിലാണ് തയ്ച്ചുകൊണ്ടിരുന്നത് ഇപ്പോഴുള്ളവരാണെങ്കിൽ എല്ലാം ഒറ്റ ഇരിപ്പിന് ചെയ്യുന്ന രീതിയിലാണ് കാരണം അവർക്കെല്ലാവർക്കും മടിയാണ് കാരണം ദേഹം അനങ്ങാൻ കഴിയത്തില്ല ഒന്നിനും കഴിയത്തില്ല എല്ലാവർക്കും സ്വയം ചെയ്യാൻ ഇപ്പോൾ യാതൊരു മടി ഇപ്പം എല്ലാം മിഷിനിൽ ചെയ്യണം എന്നാണ് അവർക്കെല്ലാം ആഗ്രഹം അതാണ് നമ്മുടെ ഇവിടുത്തെ മാറിക്കൊണ്ട് ഇപ്പോൾ കലാരൂപങ്ങളാണെങ്കിലും എല്ലാം മാറിക്കൊണ്ടിരിക്കുന്നത് അതാണ് എനിക്ക് ഇന്നിപ്പോൾ ഇവിടെ പറയാനുള്ളത് എല്ലാത്തിനെയും പറ്റി